ഇപ്പം ഞങ്ങളുടെ പ്രദേശത്തിപ്പോൾ കുറുവ ഐലൻ്റിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുറവേൻ്റെ പ്രദേശത്തു തന്നെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി കുറേ ഹോംസ്റ്റേയ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അല്ലാതെ ധർമ്മശാലകൾ എന്നു പറയാൻ ഇല്ല അത് ഹോട്ടൽസ് ഒക്കെയുണ്ട് അതേപോലെ ഹോംസ്റ്റേയെന്നു പറയുമ്പോൾ നല്ലരീതിക്കു തന്നെ ഹോംസ് ഉണ്ട് അവിടെ ഫുഡിനാണെങ്കിലും വേറെ എന്തു ഫെസിലിറ്റീസിനാണെങ്കിലും ഒരു കുറവും ഇല്ല അല്ലെങ്കിൽ ഒരു മോശവും ഇല്ല ഏറ്റവും നന്നായിട്ടു വിനോദസഞ്ചാരികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യാവോ അതേപോലെതന്നെ അവരു ട്രീറ്റ് ചെയ്യും